ആ എന്താ സാറെ ആ ഹലോ എന്താ സാറെ വേണ്ടിയത് ആ ഹലോ ആ സാർ കേൾക്കാം സാറെ കേൾക്കാം എന്താ സാറെ എന്താ വിളിച്ചത് അതേലോ ആരാണ് എന്തൊക്കെയാണ് സാറെ വേണ്ടിയത് ആ ആ ഇപ്പം ഒത്തിരി ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട് സാധനങ്ങൾക്ക് അപ്പം ഏത് ഐറ്റംസ് വേണമെന്ന് സാറൊന്ന് പറഞ്ഞാൽ മതി

ആ ഉവ്വ് ഒ ഓ ഓ ഉവ്വ് സമയം എങ്ങനെയാണ് ഉവ്വ് ഓ ഓ സാറെ ഇത് ഓഫറുള്ളത് വേണോ അല്ലെങ്കിൽ നല്ല ഇങ്ങനെ വില കൂടിയത് ഏതാണ് സാർ ഉദ്ദേശിക്കുന്നത് ഓ ഓ ആ ആ ഓ ഉവ്വ അതാണ് സാറെ നല്ലത് ഈ ഓഫറക്കെയുള്ളത് ഇങ്ങനെ നല്ല മോഡലുകളൊന്നും അല്ല അത് ചെറിയ വിലയുടെ ഒക്കെ അവർ ഇങ്ങനെ ഇടുന്നതാണ് അപ്പോൾ സാറെ ആലോചിച്ച് സാറിന് എന്ത് സാധനമാണ് വേണ്ടത് എടുത്തുകൊണ്ട് വരാം ഏ കൊച്ചുപയറ് കടല ചെറുപയറ് ആ ഐറ്റംസൊക്കെ ഏ സാറിന് എത്ര രൂപയുടെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഓ ആ എന്നാൽ അങ്ങനെ ചെയ്താൽ മതി അപ്പം ഒരാൾ ഒരു വണ്ടിയും കൊണ്ട് വരുമ്പോൾ ടാക്സി പിടിച്ചുകൊണ്ട് വരാം അപ്പോൾ സാറിൻ്റെ അടുത്ത് വന്ന് കഴിയുമ്പോൾ ആ സാധനം കണ്ട് ടോട്ടൽ എത്രയുണ്ടെന്ന് നോക്കിയിട്ട് വിളിച്ചാൽ മതി സാറ്

മ്മ് എവിടെയാണ് നമ്മുടെ വീട് തോപ്രാംകുടിയിൽ ഉള്ളതാണോ അവിടെയാണോ ഉള്ളത് മ്മ് ആ സർ അതെ അത് അതെ അതെ അതെ അത് നല്ല മാർക്കറ്റാ സാറെ അപ്പോൾ ഇവിടുന്ന് അപ്പോൾ ഒരു ഉച്ചയാകുമ്പോൾ കൊണ്ടുവന്നാൽ മതി രാവിലെ ഇത്തിരി തിരക്കാൻ ഇവിടെ ഒരു ഉച്ചയാകുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവന്നാൽ പോരെ എന്തോ എല്ലാ ദിവസവും ഇല്ല സാറെ അത് ചില ദിവസങ്ങളിലെ ഇടുകയുള്ളൂ പിന്നെ ചില വിശേഷ ദിവസങ്ങളിൽ അങ്ങനെ ഒക്കെയുള്ള പിന്നെ ഇവിടെ നല്ല ഐറ്റംസായത് കൊണ്ട് എല്ലാവരും ഇവിടെ നിന്നൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഒരുപാട് വില കുറച്ചൊക്കെ കൊടുക്കും അങ്ങനെ വില ചെക്ക് ചെയ്യും അത് വരുന്നവർക്ക് ഒക്കെ ഇത് ഇവിടെ നിന്ന് കൊടുക്കുന്നത് നല്ല സാധനങ്ങൾ ആണ് എല്ലാവരും ഇങ്ങനെ ജോലിയും കഴിഞ്ഞ് വരുമ്പം മേടിച്ചുകൊണ്ട് പോകും ആ പിന്നെ സാറെ ബഡ്ഷീറ്റൊക്കെ എത്ര എണ്ണം വേണമെന്നാണ് പറഞ്ഞത് അഞ്ച് എണ്ണം എടുക്കണോ ആ ഓ അത് കളർ സെയിം സാറെ നല്ല ലൈറ്റ് കളർ മതിയോ അല്ലെങ്കിൽ ഡാർക്ക് കളറോ ആ ഓ അപ്പോൾ എടുത്തു കൊണ്ട് വരാവേ ആ ഉവ്വ് ഉവ്വ് ഉവ്വ് ഞാൻ പിന്നെ എന്നാ അവരെ പറഞ്ഞ് വിടുന്നതായിരിക്കും നല്ലത് കാരണം അവർക്ക് ഏത് കളർ നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ നമ്മൾ അവിടെ കൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് കൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ കളറില്ല അല്ലെങ്കിൽ അത് കൊള്ളുകയില്ല പറയും പിന്നത് തിരിച്ച് കൊണ്ട് വരണ്ടേ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് തിരിച്ച് തരേണ്ട കാര്യമില്ലല്ലോ കൊണ്ട് വരാവല്ലോ ഏ ഓക്കെ സാറെ